ഹലോ ആ പിന്നെ ഞാൻ തന്നെ ആ ആ എന്തിനാണിപ്പോൾ ആ ഇന്ന് ഒരു ദിവസം ലീവ് കിട്ടി അപ്പോൾ വിളിക്കുന്നുണ്ട് ആ പറഞ്ഞോടീ എന്തിന് ഇപ്പോൾ

ആണോ ചിരിച്ചിനോ എന്ന് അല്ലേ ആകട്ടെ ആകട്ടെ ഞാനും വരാം എവിടെ പോന്ന് ഇപ്പോൾ ഇങൊ ഏത് ജ്വല്ലറിക്ക് പോകാൻ നീ എൻ്റെ ജ്വല്ലറിക്ക് പോകുന്നോ എൻ്റെ ജ്വല്ലറി എന്ത് അവിടെ ബിന്ദു ജ്വല്ലറി വരുന്നോ

അവിടെ വളയ്ക്ക് എല്ലാം പത്ത് ശതമാനമേ ഇല്ലു ഭയങ്കരം പണിക്കൂലി ആണ് അത് ഞങ്ങൾക്ക് ഈ അറിയുന്നതുകൊണ്ട് ഞങ്ങൾ തീയ്യർ അല്ലേ പറഞ്ഞിട്ട് എന്തെങ്കിലും ശരി ആക്കുന്നണ്ടെങ്കിൽ പോകുന്നോ ആ മോശം ഇല്ല നല്ല നല്ല ഡിസൈൻ എല്ലാം ഉണ്ട് ഇത് എന്ത് എടുക്കാൻ വള എടുക്കാനോ ആ ആ നല്ല കല്ലിൻ്റെ എല്ലാം അല്ലേ ആ ആ അത് അതെ പൈസ ഇപ്പോൾ ഞങ്ങളെ കെട്ട് കുറച്ച് വലുത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിചാരിച്ചടുത്തൊക്കെ പോവാൻ ഇത് ആ പണിക്കൂലി എല്ലാം നമുക്കാണ് അത് തന്നെ അത് തന്നെ അത് തന്നെ അത് ഉണ്ട് എനിക്ക് അറിയുന്ന ഒരു സുനി ഏട്ടൻ ഉണ്ട് ഇവിടെ ബിന്ദു ജ്വല്ലറിയിൽ എനിക്ക് അറിയുന്ന ഒരു സുനി ഏട്ടൻ ഉണ്ട് അപ്പോൾ നോക്കാം ഞങ്ങൾക്ക് പലിശ എല്ലാം കുറച്ച് കുറച്ച് തരും ഞങ്ങൾക്ക് ഇപ്പോൾ എത്ര വരുന്ന ടൗണിൽ ഒക്കെ ആ ഞാൻ വരും ഞങ്ങൾക്ക് പോവാം എൻ്റെ പണിയെല്ലാം ആക്കിയിട്ട് ആവും പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഐസ് ക്രീം എല്ലാം കഴിക്കാം ആ വാ ആ പോരുക

ആയി ആയി നോക്കാം ഞങ്ങൾക്ക് നോക്കാം ഞങ്ങൾക്കും നോക്കണം അടുത്തതിന് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് അവനെ കൊണ്ട് ചാക്കിൽ പിടിപ്പിക്കാം ഒരു വള ഞാനും നോക്കട്ടെ കൂടീന് അതിനെ കെട്ടലേ ഇല്ല അന്ന് ഒരു അഞ്ഞൂറ് ഉർപ്യ കിട്ടീന് അതിൽ ഉണ്ട് തരില്ല അതെ നോക്കാം ഞങ്ങൾ രണ്ട് മിനിറ്റ് ബസ്സിൻ്റെ ടൈമ് ആവാൻ ആയി ഞാൻ വെക്കുന്നു അപ്പോൾ ആയോ